ഉത്സവങ്ങൾക്കായി ആയി മതപരിപാടികൾക്കുമായി ഞങ്ങൾ വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇല്ല അത് നമ്മടെ സഭയുടെ കാര്യങ്ങളെല്ലാം അനുസരിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല പക്ഷെ വിഗ്രഹങ്ങളെ വണങ്ങാം നമ്മുടെ പുണ്യവാൻമാരെയും മറ്റ് സഭയിലെ എല്ലാ വൈദികരേയും മറ്റും വണങ്ങുന്നതു പോലെ തന്നെ എല്ലാ സഭയിലെ മേലദ്യക്ഷ ന്മാരെയൊക്കെ വണങ്ങുന്നതുപോലെ മറ്റ് സഭ എല്ലാ മേലെ പുണ്യവാന്മാരെയും വിശുദ്ധരെയും നമ്മൾ വണങ്ങുന്നുണ്ട് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന എല്ലാ ആളുകടെയും രൂപങ്ങളൾ നമ്മൾ സ്ഥാപിക്കാറുണ്ട് അതിൽ പ്രത്യേകിച്ച് വണങ്ങാറുണ്ട് അവർ പ്രത്യേകിച്ചും ഈ അടുത്തകാലത്ത് വിശുദ്ധയായി പ്രഖ്യാപിച്ച മതർ തെരേസ സിസ്റ്റർ മരിയ